ഈ ആധുനിക ലോകത്ത് മലയാള ഭാഷ നേരിടുന്ന വെല്ലുവിളികളെന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇപ്പം ഈയൊരു കാലഘട്ടത്തിലും മെയിനായിട്ട് നമ്മുടെ കേരളക്കാരെ മാതൃഭാഷ എന്ന് പറഞ്ഞത് മലയാളമാണ് പക്ഷെ മലയാള ഭാഷയ്ക്ക് കേരളത്തിന് പുറത്തേക്ക് വേണ്ടെങ്കില് വലിയ ഒരിതില്ല കേരളത്തില് മാത്രം ഒതുങ്ങിക്കൂടി ജീവിക്കുന്ന ഒതുങ്ങിയുള്ള ഒര് ഭാഷാശൈലിയാണ് നമ്മളുടെ മലയാളഭാഷ ഇപ്പം കേരളത്തിലിപ്പം ഇപ്പം കേരളത്തിൽ ഇന്ന് നമ്മുടെ ഫസ്റ്റ് ലാംഗ്വേജായി കേരളത്തില് നിൽക്കുന്നത് ഏതാ മലയാളം പക്ഷേ പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഓരോ ജില്ല ഓരോ ഓരോ ഇതിനും ഓരോരോ ഭാഷകളാണ് നമ്മുടെ കേരളത്തിന് മാതൃഭാഷ എന്ന് പറഞ്ഞാൽ മലയാളാമാണെങ്കിലും പിന്നെ നമുക്ക് പക്ഷെ പ്രാചീന ഭാഷ എന്നൊക്കെ പറഞ്ഞാൽ ഇംഗ്ലീഷല്ലേ ഇപ്പം മസ്റ്റായിട്ട് ഇപ്പം എല്ലാവരും മലയാളം കൊണ്ട് മാത്രമല്ല ഇംഗ്ലീഷാണിപ്പം മെയിനായിട്ട് എവിടെപ്പോയിട്ടുണ്ടെങ്കിലും ഇംഗ്ലീഷാണ് മസ്റ്റ് ഇപ്പം പലവര് ഏതെങ്കിലും ഒരു കമ്പനിയിൽ ഇൻറ്റർവ്യൂവിനോ അങ്ങനത്തെ എന്ത് കാര്യങ്ങൾക്ക് പോകുവാണേലും ഇംഗ്ലീഷാണ് മെയിന് ഇംഗ്ലീഷ് നല്ല രീതിക്ക് പറയാനും സ്പോക്കൺ ചെയ്യാനുമൊക്കെ ഉള്ള ആ ഒരു കഴിവ് ഉണ്ടെങ്കിലും അതാണ് മെയിനായിട്ട് നോക്കുന്നത് ഇംഗ്ലീഷാണ് നോക്കുന്നത് ഇതിപ്പം മലയാളം എന്ന് പറഞ്ഞാൽ കേരളത്തില് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒര് ഇതാണ് അപ്പോൾ നമ്മുടെ മലയാള ഭാഷ ഈ ആധുനികമായ മലയാളത്തിന് വില ഇല്ലാന്ന് പറഞ്ഞത് ഒന്നുമല്ലേ നമ്മളുടെ നാട്ടില് നമ്മുടെ കേരളത്തില് വിലയുണ്ട് പുറത്തേക്കില്ല